നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിലെ ഒരുപാധി തന്നെയാണ് എന്താ വൈദ്യുതി എന്നു പറയുന്നത് വൈദ്യുതി ഇല്ലെങ്കിൽ അത് കരണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കരണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ ഒരു മാതിരി എന്തോ അല്ലേ അതായത് ഓരോ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്യാനാണെങ്കിൽ മിക്സിയിൽ എന്താ എന്തെങ്കിലും അരക്കണമെങ്കിൽ മിക്സിയുടെ ആവശ്യം വേണം പിന്നെ നമ്മൾക്ക് ഷർട്ട് തേക്കണമെങ്കിൽ എന്താ അതിനും എന്താ തേപ്പു പെട്ടിയുടെ ആവശ്യമാണ് അപ്പോൾ എന്താ അപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റായൊരു കാര്യം തന്നെയാണ് കരണ്ടെന്നു പറയുന്നത് വൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് അല്ലേ ഇപ്പം ചിലപ്പം എന്തെങ്കിലും ഒരത്യാവശ്യത്തിനൊക്കെയാണെങ്കിൽ വൈകുന്നേരം രാത്രി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കറണ്ടില്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ കാലത്ത്

എന്താ ഇപ്പോൾ എന്താ ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും എന്താ തേപ്പു പെട്ടി ആണെങ്കിലും പിന്നെന്താ ലൈറ്റാണെങ്കിലും പിന്നെന്താ അങ്ങനെ ഓരോ ഓരോ ഓരോരോ കാര്യങ്ങളും ഓരോ അത്യാവശ്യം ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റായൊരു കാര്യം തന്നെയാണ് കറൻറ്റെന്ന് പറയുന്ന അതില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീ എന്താ ജീവിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് ആരുടെയും വീട്ടിൽ തന്നെ ഇൻ ഇൻവെർട്ടറുകളൊന്നും ഇല്ലാത്ത സിറ്റുവേഷനാണെങ്കിൽ പിന്നെ നമ് എന്ത് ഇൻവർട്ടറൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നം കരണ്ട് പോയിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പക്ഷെ കൂടുതലും ഇപ്പോഴല്ലല്ലോ മഴ സ മഴ സമയത്താണ് കൂടുതലും എന്താ കരണ്ടൊക്കെ പോകാനും അങ്ങനെ ഇപ്പം ഇപ്പം കണ്ടില്ലേ ഇപ്പമാണ് ചൂടിൻ്റെ സമയമായതു കൊണ്ട് ചൂടിൻ്റെ സമയമായതു കൊണ്ട് എന്താ ഫാനിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാനില്ലാണ്ട്

പിന്നെന്താ ആദ്യ കാലയങ്ങളിലൊക്കെ വൈദ്യുതി മുടങ്ങുമ്പോൾ പിന്നെ വൈദ്യുതി ഇല്ലാത്ത ഇല്ലാത്ത കാലത്ത് എന്താ തിരിയും മെഴുക് തിരി കത്തിച്ച് വെച്ചും പിന്നെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചൊക്കെയാണ് ആൾക്കാർ എന്താ വൈദ്യുതി മാർഗ്ഗം എന്താ വെളിച്ചത്തിനുള്ള മാർഗ്ഗം സ്വീകരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു സിറ്റുവേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടു തന്നെ എന്താ പറയുക ഇപ്പോഴത്തെ കറൻറ്റിൻ്റെ അത്യ എന്താ വൈദ്യുതിയുടെ അത്യാവശ്യം കൂടുതലാണ് പിന്നെ ആരുടെയും വീടുകളിൽ തന്നെ ഇപ്പം ഒട്ടുമിക്ക വീടുകളിൽ തന്നെയും ഇൻ ഇൻ ഇൻവെർട്ടറുകളൊന്നും ഇല്ലാത്തതു കൊണ്ടു തന്നെ വൈദ്യുതിയെന്നു വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യം താ അത് മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയുക നമുക്ക് ഏറ്റവും കിട്ടുന്ന അടിയായിരിക്കും